ഇന്ത്യയിൽ ഒട്ടനവധി ലാൻഡ്മാർക്കുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഉണ്ട് ഓരോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ലാൻഡ്മാർക്കുകളും അതത് സംസ്ഥാനത്തിൻ്റെ സംസ്കാരത്തിനനുസരിച്ചായിരിക്കും ബന്ധപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ ഡൽഹിയിലെ താജ് മഹാൽ പിന്നെ ജയ്പ്പൂരിലെ കോട്ടകൾ ഡൽഹിയിലെ തന്നെ റെഡ് ഫോർട്ട് അങ്ങനെ ഒട്ടനവധി എടുത്ത് പറയാവുന്ന ലാൻഡ്മാർക്കുകൾ ഇന്ത്യയിലുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഗോവ പിന്നെ ലെ ലഡാക്ക് മണാലി പിന്നെ കേരളത്തിലെ മൂന്നാർ അങ്ങനെ ഒട്ടനവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്ത്യയിലുണ്ട് ഓരോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അവിടുത്തെ കാലാവസ്ഥയും എല്ലാം അതത് സംസ്ഥാനത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു കാലാവസ്ഥാന്ന് പറയുമ്പോൾ ഇപ്പോൾ മഞ്ഞ് അധികം കിട്ടുന്ന സ്ഥലമാണ് ഇന്ത്യയുടെ വടക്ക് ഭാഗത്തോട്ട് വരുമ്പോൾ അതായത് ജ കാശ്മീർ ആ ഭാഗത്തേക്ക് വരുമ്പോൾ മഞ്ഞൊരുപാട് കാണുന്ന പ്രദേശമാണ് ഇന്ത്യയുടെ നട് നട് പ്രദേശമായിട്ടുള്ള ഡൽഹി തുടങ്ങിയ ഇടങ്ങളിലേക്ക് വരുമ്പോൾ അധികം മഞ്ഞിൽ മഞ്ഞ് മാത്രമല്ല മഴയും അങ്ങനെ അധികം അല്ല വേനലാണ് കൂടുതലും കണ്ട് വരുന്നത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ കേരളത്തിൽ മൂന്നാർ വയനാട് അങ്ങനെ ഒരുപാട് വനം വനവുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും കേരളം കേരളത്തിൽ ഒട്ടനവധി നാഷണൽ പാർക്കുകളുണ്ട് എടുത്ത് പറയാൻ പറ്റുന്നത് ഇരവികുളം സൈലൻറ്റ് വാലി അങ്ങനെ ഒട്ടനവധി നാഷണൽ പാർക്കുകൾ കേരളത്തിൽ ഉണ്ട്